പത്തനംതിട്ട ജില്ല നേരത്തെ ആലപ്പുഴ ജില്ലയില്പ്പെട്ടതായിരുന്നു അത് അവിടെ നിന്ന് മാറി പത്തനംതിട്ട ജില്ലയായി തിരിച്ചതാണ് പത്തനംതിട്ട ജില്ല വിശാലമായി നീണ്ടു കിടക്കുന്ന ഒരു സ്ഥലമാണ് പത്തനംതിട്ട ജില്ല കോട്ടയം ജില്ലയുടെ ഒരു ബോഡറായിട്ട് വരുന്നു പത്തനംതിട്ട ജില്ലയിൽ പല പല കാഴ്ചകളും പ്രകൃതിയെ പ്രകൃതിഭംഗി ഉള്ളതുമായ സ്ഥലങ്ങൾ കാണാനിടയുണ്ട് കൂടുതലും പാറക്കെട്ടുകളും വെള്ളച്ചാട്ടങ്ങളും ഒക്കെയുണ്ട് തൂക്കുപാലം ഒരു തൂക്കുപാലം ഉണ്ട് പത്തനംതിട്ട ജില്ലയിൽ വളരെ മനോഹരമായ പ്രകൃതിരമണീയമായൊരു സ്ഥലമാണത് പിന്നെ നീരറുവികളും വെള്ളച്ചാട്ടങ്ങളിലാണെങ്കിൽ പിള്ളേര്ക്കൊക്കെ എഞ്ചോയ് ചെയ്യാന് പറ്റിയൊരു സ്ഥലമാണ് ചെറിയ ചെറിയ വെള്ളക്കെട്ടുകൾ എന്നാൽ ഉയര്ന്ന സ്ഥലങ്ങളും ഉയര്ന്ന സ്ഥലങ്ങളും ഇത് ഒരു താഴ്വാരങ്ങളും ഉള്ളയൊരു സ്ഥലമാണ് പത്തനംതിട്ട ജില്ല പത്തനംതിട്ട ജില്ലയിൽ പ്രമുഖരായ പല വ്യക്തികള്ക്കും ജന്മം കൊടുത്തിട്ടുള്ളയൊരു സ്ഥലമാണ് പത്തനംതിട്ട ജില്ല പ്രത്യേകമായി ഫിലിം സ്റ്റാറുകളായ തിലകന് അടൂര് ഗോപാലകൃഷ്ണന് മോഹന്ലാൽ തുടങ്ങിയ അവര്ക്ക് ജന്മം നല്കിയ ഒരു സ്ഥലം കൂടിയാണ് പത്തനംതിട്ട ജില്ല പത്തനംതിട്ട ജില്ല റബ്ബറ് റബ്ബര് മരങ്ങളാല് നിബിഡമായ ഒരു പ്രകൃതിരമണീയമായ സ്ഥലമാണ് റബ്ബര് മരങ്ങളും ആ അതല്ലാതെ വളരെ വളരെ ആ മരസമൂഹം മരങ്ങളാല് നിറയപ്പെട്ട ഒരു പ്രകൃതിരമണീയമായ സ്ഥലമാണ് പത്തനംതിട്ട ജില്ലയിലെ പല മത എല്ലാം മൂന്ന് മതങ്ങളും ഹിന്ദു മുസ്ലീം ക്രിസ്റ്റ്യന് സമൂഹത്തില്പ്പെട്ടവർ പാര്ക്കുന്നയൊരു സ്ഥലമാണ് പത്തനംതിട്ട ജില്ല പത്തനംതിട്ട ജില്ലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിന്റെ അതിന്റെ മനോഹാരിത വളരെ പ്രശംസനീയം തന്നെയാണ് ഇത്രയേ എനിക്ക് പത്തനംതിട്ട ജില്ലയേക്കുറിച്ചറിയു